എനിക്കൊരു ഫയല് കുറച്ച് ഫയലുകള് അന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി അയച്ചുകൊടുക്കേണ്ടതായിരുന്നു എനിക്ക് മേഡം തന്നത് അപ്പോൾ എനിക്ക് അത് ചെയ്തപ്പോൾ ഫുള്ള് അതെല്ലാം തെറ്റുപറ്റിപോയി അപ്പൊൾ ഞാൻ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോയി ടെൻഷനായി പകുതി സ്റ്റാഫ് അന്ന് ലീവായിരുന്നു എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല അന്ന് തന്നെ കംപ്ലീറ്റ് ആക്കി കൊടുക്കണ്ട ഫയലും ആയിരുന്നു ഞാൻ വേഗം എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു ആ ഫ്രണ്ട് ലീവായിരുന്നു അന്ന് ഞാൻ ഫ്രണ്ടിനെ വിളിച്ചു ഫ്രണ്ട് എനിക്കതെല്ലാം എങ്ങനെയാണ് ചെയ്യണ്ടതെന്ന് ഞാൻ പുതിയ സ്റ്റാഫ് ആയതും കൊണ്ടായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയത് അപ്പൊൾ അവള് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു ഞാൻ വേഗം അത് നീറ്റാക്കി ചെയ്തു അന്ന് തന്നെ അയച്ചു അങ്ങനെയാണ് എനിക്ക് തെറ്റ് പറ്റിയ കാര്യം ഞാൻ മാനേജ് ചെയ്തത്